ഞാൻ ഒരു പുസ്തകം വാങ്ങിയിരുന്നു എനിക്ക് വളരെ അധികം ഒരു നെഗറ്റീവ് അനുഭവം ഉണ്ടായത് കാരണം ഞാൻ അത്യാവശ്യം ടോപ്പിക് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബുക്ക് വാങ്ങിയത് ഞാൻ ഡിഗ്രി ആണ് പഠിക്കുന്നത് എനിക്ക് ഫുഡ് സയൻസ് എന്ന ബുക്കാണ് ഞാൻ വാങ്ങിയത് പക്ഷെ അതിൽ എനിക്ക് എന്താണ് ഞാൻ വിചാരിക്കുന്ന ഞങ്ങൾക്ക് സിലബസിലുള്ള ടോപ്പിക്ക് പോലും അതിൽ ഇല്ല ഫുൾ എന്താണ് കുറച്ച് കുറച്ചു കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ട് ബുക്ക് ചെയ്തത് പക്ഷെ അത്യാവശ്യം പൈസ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത് ഇത്ര ടോപ്പിക് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബുക്ക് വാങ്ങിയത് പക്ഷെ എനിക്ക് ആ ബുക്കിൽ ഞാൻ വിചാരിച്ച രീതിക്കുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല എന്താണ് എഴുത്തൊന്നും തീരെ തെളിഞ്ഞിട്ടില്ലേനു പിന്നെ ആണെങ്കിൽ പേജസ് ആണെങ്കിൽ ഫുള്ള് ഡിസോർഡർ ആയിട്ട് മറഞ്ഞിട്ടായിരുന്നു കിടന്നിരുന്നത് പിന്നെ അങ്ങനെ എനിക്ക് വളരെ അധികം സങ്കടമായി കാരണം എനിക്ക് അത്രയും ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ വിചാരിച്ച ഒരു കോഴ്സേനു ചെയ്യുന്നു ഫുഡ് സയൻസ് അപ്പം അതിൽ നിന്ന് എനിക്ക് പഠിക്കണം എനിക്ക് ഗൂഗിൾ വിക്കിപീഡിയ അങ്ങനെ കുറേ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ട് പക്ഷെ അതിലൂടെ ഒന്നും നമ്മൾ വലിയ ഇൻഫോർമേഷൻ കിട്ടില്ല ബുക്കിലൂടെ ആണ് നമ്മൾ ഇൻഫൊർമേഷനും കാര്യങ്ങളും കൂടുതലായിട്ട് ഡീപ്പ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടത് പക്ഷെ അതൊന്നും അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയത് പക്ഷെ എനിക്ക് ആ ഒരു ഒരു പ്രതീക്ഷിച്ച അത്രയും എനിക്ക് ആ ബുക്കിൽ നിന്ന് കിട്ടിയില്ല വളരെ അധികം സങ്കടമായി എൻ്റെ ഉമ്മ ഉപ്പ അത്രയും അധ്വാനിച്ച് എനിക്ക് ക്യാഷ് തന്നിട്ട് പൈസ തന്നിട്ട് ഞാൻ അത് ഒരു ബുക്ക് വാങ്ങാൻ നോക്കിയപ്പോൾ ആ ബുക്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഞാൻ വിചാരിക്കുന്ന ഞാൻ പഠിക്കാൻ ഉള്ള ടോപിക്സ് പോലും ഇല്ലാതെ കീറിപ്പറിഞ്ഞ് അതിൻ്റെ എഴുത്തുകളൊന്നും കാണാത്ത രീതിക്കുള്ളൊരു ബുക്ക് ആയിരുന്നു എനിക്ക് കിട്ടിയത് വളരെ അധികം സങ്കടമായൊരു ദിവസേനു അന്ന് അന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല കാരണം എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു കോഴ്സെടുത്ത് പഠിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊരു ഒരു ബാഡ് അനുഭവം ഉണ്ടായി അതാണ് എനിക്ക് ടെക്സ്റ്റ് ബുക്കിനെ പറ്റി പറയാനുള്ളത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയാലും അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടായാലേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ പക്ഷെ അതൊന്നുമില്ലാതെ എനിക്ക് കിട്ടീല അതൊന്നും കിട്ടീല